ഈ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കി അർഹി അർഹിക്കുന്നവ തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ പുരാതനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഇതുങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഴയ ആളുകൾ മരുഭൂമിയിലൂടെയും പിന്നെ വിജനമായ പ്രദേശത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ ഈ വഴികാട്ടിയായി നക്ഷത്രങ്ങളെയാണ് യൂസ് ചെയ്തിരുന്നത് അതായത് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇവർ ഈ നക്ഷത്രമൊക്കെ നോക്കി നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ദിക്കുകളറിയാനും പിന്നെ ദിക്കുകളറിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി നക്ഷത്രം തന്നെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത് തന്നെ അതായത് ഐറിസ് ഹാള ജിന എന്നിവയൊക്കെ ഒരു നക്ഷത്രങ്ങളുടെ പേര് തന്നെയാണ് പിന്നെ ഈ നക്ഷത്രങ്ങൾ കുറെ ആയും ഈ ഇത് ഇവർക്ക് കുറെ സമൂഹം പോലെ കുറെ ഇതൊക്കെ ഉണ്ട് അതായതൊര് കൂട്ടം നക്ഷത്രങ്ങളേ തന്നെയാണ് ഈ ഐറിസെന്ന് തന്നെ വിളിക്കുന്നത് അതുപോലെ ഒക്കെയുള്ള കുറേയധികം നക്ഷത്ര സമൂഹങ്ങൾ നമ്മുടെ ഈ ഗാലക്സിയിൽ ഉണ്ട് എന്നത് ശാസ്ത്രജ്ന്മാർ ഓരോരോ ദിനംപ്രതി കണ്ടുപിടിച്ച് കൊണ്ട് തന്നെ ഇരിക്കുകയാണ്